ഡെങ്കു പനി നമ്മുടെ ഇടയിൽ ഇത്ര അധികം ബാധിക്കുന്നത് രണ്ട് കാരണങ്ങൾ മൂലമാണ് ഒന്ന് അത് പരത്തുന്ന ഡെങ്കു പനി പരത്തുന്ന കൊതുകുകൾ ഏഡിസ് എന്നു പറയുന്ന കൊതുകളാണ് ഡെങ്കു പനി വള നമ്മുടെ ഇടയിൽ വളരെയധികം പരത്തുന്നത് ഈ കൊതുകുകൾ സാധാ കൊതുകളെ പോലെ എല്ലാ സമയം കടിക്കുന്ന കൊതുകുകളല്ല ഇവ ഈ കൊതുകുകൾ സൂര്യൻ ഉദി ഉദിച്ചതിനു മൂന്ന് മണിക്കൂർ നേരത്തെയും സൂര്യൻ അസ്തമിക്കുന്ന സമയം ആയ ഒരു മൂന്നു മണിക്കൂറിലാണ് ഇത് ആൾക്കാരെ കടിക്കുന്നത് ഇവയുടെ കാലിൽ വെള്ള കളർ സ്ട്രാപ്പ്സ് കാണാം ഈ കൊതുകുകൾ വളരെ സൈലൻറ്റാണ് ഇവരുടെ കടി വളരെ പെയിൻലെസ് ആണ് നമുക്ക് അറിയാൻ പറ്റില്ല അതേപോലെ തന്നെ രണ്ടാമത്തെ കാരണം നമ്മുടെ ഡെങ്കി പനി വരാനുള്ള മറ്റൊരു കാരണം എന്താന്നു വെച്ചാൽ നമ്മുടെ പ്രതിരോധശേഷി കുറയുന്നതാണ് രണ്ടാമത്തെ കാരണം നമ്മുടെ പേഴ്സണൽ ഹൈജീനും ഫുഡ് ഹാബിറ്റ്സും എല്ലാം കൊണ്ട് നമ്മുടെ പ്രതിരോധ ശേഷി കുറയുന്നതാണ് രണ്ടാമത്തെ കാരണം ഈ കൊതുകുകളെ നമ്മുടെ വീട്ടിൽ നിന്നും വീടിൻ്റെ പരിസരത്തു നിന്നും അകറ്റാനുള്ളതാണ് നമ്മുടെ ഡെങ്കി പനി വരുന്നതിന് പ്രിവൻഷനായിട്ട് അല്ലെങ്കിൽ മുന്നോടിയായി ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഇവറ്റങ്ങളും നമ്മുടെ വീടിൻ്റെ പ്രദി പ്രദേശത്തുനിന്നു മാറ്റിനിർത്താൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ചു കാര്യങ്ങളുണ്ട് നമ്മുടെ പറമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും കെട്ടിനിൽക്കുന്ന വെള്ളം കമഴ്ത്തി കളയുകയോ അവിടന്നാ വെള്ളം മാറ്റി വെയ്ക്കുകയും അല്ലെങ്കിൽ നമ്മുടെ ടാങ്കുകൾ പ്രോപ്പർ ആയി അല്ലെങ്കിൽ കറക്റ്റ് ആയി അടച്ച് സൂക്ഷിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഈ കൊതുകുകൾ ഏഡിസ് കൊതുകുകൾ ശുദ്ധവെള്ളത്തിൽ നല്ല വെള്ളത്തിൽ ആണ് ഇവ മുട്ടയിട്ട് പെരുകുന്നത് അതു കൂ അത് മാത്രമല്ല ഈ കൊതുകുകൾ നാന്നൂറ് മീറ്റർ ചുറ്റളവ് ചുറ്റളവിൽ ഈ രോഗം സ്പ്രെഡ് ചെയ്യാൻ അല്ലെങ്കിൽ രോഗം വർദ്ധിച്ച എല്ലാവരിലേക്കും എത്തിക്കാൻ ആയിട്ടുള്ള പവർ ഉള്ള പവർ ഉള്ള ഒരു ഇൻസെക്റ്റ് ആണ് ഈ ഏഡിസ് കൊതുകുകൾ എന്നുപറഞ്ഞാൽ അതേപോലെതന്നെ ഈ ഏഡിസ് കൊതുകുകൾ നമ്മുടെ വീടിൻ്റെ അകത്ത് വരുന്നതിനായിട്ട് നമുക്ക് പ്രിവൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ റൂമുകളിനകത്ത് നമ്മൾ ചെറിയ ചെറിയ ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ നമുക്ക് ഈ കൊതുകുകളെ അവോയ്ഡ് ചെയ്യാൻ പറ്റിയ ചില ചില നമുക്ക് ചില ചില ആ സാധനങ്ങൾ ഉണ്ടല്ലോ പുകച്ച് ഈ കൊതുകുകളെ അകത്തു വരാതിരിക്കാൻ ആയിട്ടുള്ള ചില ചില അഗർബത്തീസ് ടൈപ്പ് ഓഫ് തിങ്സ് നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ് അത് ഉപയോഗിച്ച് കൊതുകുകൾ വീടിനകത്ത് വരുന്നത് നമുക്ക് പ്രിവൻറ്റ് ചെയ്യാം അതേ പോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചുകൊണ്ട് ജനവാതിലുകളുടെയും മറ്റും ഭാഗങ്ങളിൽ ഇട്ടു കഴിഞ്ഞാൽ ഈ കൊതുകുകൾ അകത്ത് വരില്ലയെന്നു പറയുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ചുറ്റിനും നമ്മുടെ വീടിൻ്റെ ആ പറമ്പ് വശങ്ങളിലുള്ള പുല്ലും പുല്ലുകൾ വെട്ടിയൊതുക്കാൻ ശ്രദ്ധിക്കണം കാരണം ഇവറ്റകൾ ഇതിനകത്ത് ഇരുന്ന നിൽക്കുന്ന വെള്ളത്തിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ പെറ്റുപെരുകാനുള്ള സാദ്ധ്യതകൾ കൂടുതലാണ് അതേപോലെതന്നെ നമ്മുടെ വീടിനു ചുറ്റുമുള്ള ചെടികളുടെ ഇടയിൽ മണ്ണെണ്ണയും അതേപോലെ തന്നെ സോപ്പും മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്തു ഈ പറഞ്ഞതു പോലുള്ള കൊതുകുകളെ അകറ്റാൻ അത് സഹായിക്കും അങ്ങനെ ചെയ്യുന്നത് കൊണ്ടു തന്നെ അവർ അവരിട്ടിട്ടുള്ള മുട്ടകൾ കേടായി പോകാനും ഈ കൊതുകുകൾക്ക് അവിടെ നിൽക്കാൻ പറ്റാണ്ടാവുകയും ചെയ്യും ഈ പറഞ്ഞതു പോലെ തന്നെ നമ്മുടെ പരിസരങ്ങളും നമ്മൾ വീടിനു ചുറ്റുപാടും ക്ലീൻ ആക്കിയാൽ തന്നെ നമുക്കീ കൊതുകുകളെ മാറ്റി നിർത്താനും അവയിൽ നിന്ന് രക്ഷപെടാനും പറ്റും ഈ പറഞ്ഞതു പോലെ തന്നെ അതേപോലെതന്നെ മലേറിയയും ഈ പറഞ്ഞതു പോലെ നമ്മൾ നമ്മൾ നമ്മുടെ വീടും നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണവും നമ്മൾ വിളമ്പുന്ന പ്ലേറ്റുകളും എല്ലാം വളരെ വെത്യ വൃത്തിയായി സൂക്ഷിക്കുന്നത് കൊണ്ട് സൂക്ഷിച്ചാൽ നമുക്ക് ഈ മലയേറിയ തുടങ്ങിയ രോഗങ്ങളിൽ നിന്നും മാറിനിൽക്കാൻ നമ്മുടെ പ്രതിരോധശേഷി കൂട്ടാനുള്ളതാണ് പിന്നെയുള്ള ഒരു വഴി നമ്മൾ നല്ല ഫുഡ് കഴിച്ച് ബോഡി ഹീറ്റ് കുറയ്ക്കുന്ന ടൈപ്പിലേക്ക് നമ്മുടെ ഡയറ്റുകൾ കൊണ്ടുവരികയും റെഡ് മീറ്റുകൾ കുറയ്കുകയും ധാരാളം ഫൈബർ അടങ്ങിയ ഫ്രൂട്ട്സും മിനറൽസും അടങ്ങിയ ഫ്രൂട്ട്സ് കഴിക്കുകയാണ് നമ്മുടെ പ്രതിരോധശേഷി കൂട്ടാൻ പറ്റിയ ഒരു കാരണം കാര്യം അതേപോലെതന്നെ ധാരാളം വെള്ളം കുടിക്കുക കാരണം നമുക്കറിയാം നല്ല ചൂട് ചൂടുകാലമാണ് ധാരാളം വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ ബോഡി ഹീറ്റ് കണ്ട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും അതേപോലെതന്നെ വളരെ ക്ലീനായി വളരെ വൃത്തിയോടെ നമ്മുടെ ബോഡിയും നമ്മുടെ ചുറ്റുപാടുകളും വയ്ക്കാൻ ശ്രമിക്കുക ഈ വളരെ വൃത്തിയായി വെക്കുന്നതിലൂടെ നമുക്ക് മലേറിയ പോലെയുള്ള വൃത്തി ഇല്ലായ്മയിൽ നിന്നു വരുന്ന അസുഖങ്ങൾ പ്രിവൻറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ റെസിസ്റ്റിംഗ് പവർ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം ആരോഗ്യം കൂട്ടാനുള്ളതാണ് ഈ രണ്ട് രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും അല്ലെങ്കിൽ പ്രിവൻറ്റ് ചെയ്യാനും പറ്റിയിട്ടുള്ളൊരു ട്രിക്ക് എല്ലാവരും വളരെ വൃത്തിയായി വീടും സ്വന്തം സൂക്ഷിക്കാനുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം